നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഭാഗങ്ങൾ എനിക്ക് ട്രിവാൻട്രമായിട്ടാണ് തോന്നുന്നു കാരണം നമുക്കു തന്നെ മെയിനായിട്ട് റെക്കോർഡ്സിലൊക്കെ ട്രിവാൻഡ്രം ഏറ്റും ജനസാന്ദ്രയുള്ളൊരു പ്രധാന ഭാഗയിട്ട് പറയുന്നു അപ്പം അവിടെ താമസിക്കുന്നവർക്ക് ഗുണങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അപ്ഡേറ്റുകൾ അവർ നാൾ എന്ന ഷോപ്പിംഗ് മാൾസ് ഹൈപ്പർ മാർകെറ്റ്സ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര അപ്ഡേറ്റഡായിട്ടുള്ള ആൾക്കാരാണ് അവർക്കു സാധനങ്ങളിലെ അവൈലബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ് പക്ഷെ പ്രതികൂലവശങ്ങളെന്തൊക്കെയാണെന്നു വെച്ചു കഴിഞ്ഞാൽ

പിന്നെന്താണ് പറമ്പോ കൃഷിയോ അങ്ങനെ കൃഷി ചെയ്യിതൊക്കെ ജീവിക്കുന്നവർ വളരെ കുറവാണ് അങ്ങനെയൊക്കെ കുറച്ചു കാര്യങ്ങളാണ് അവർക്ക് സർവൈവ് ചെയ്യേണ്ടതായിട്ടു വരുന്നു